നിലവിലിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങള് വർധിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മള് ഇപ്പൊൾ ജീവിക്കുന്നത് എന്താ പറയുക ആളുകൾക്ക് മനസാക്ഷി ഇല്ലാണ്ട് എന്താ എന്ത് തെറ്റാ ചെയ്യേണ്ടെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരുപാട് തെറ്റുകള് അത്രയും ക്രൂരമായ തെറ്റുകളിലൂടെയാണ് മനുഷ്യരിപ്പോൾ പലരും പല ക്രിമിനൽ മൈൻഡിലൂടെയാണ് പല മനുഷ്യരും കടന്ന് പോവുന്നത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ തന്നെയാണ് ഒരു സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു നിയമം മാക്സിമം കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം തക്കതായ ഒരു ശിക്ഷയും കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നുണ്ടെങ്കില് ഒരു പ്രതിക്ക് വീണ്ടും ആ ഒരു തെറ്റ് ആവർത്തിക്കാൻ പറ്റില്ല അല്ലേ ആ ഒരു ഇപ്പൊൾ റേപ്പ് കേസിൽ പ്രതി ആണേൽ തന്നെ അയാൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താണോ അത് കൊടുക്കാൻ കഴിയണം ഇപ്പൊൾ ഗൾഫ് രാജ്യത്തിലെയൊക്കെ പോലെ ആണെങ്കില് കൊല്ലുകയാണ് കൊല്ലുക തന്നെ വേണം അങ്ങനെ ഒരു ശിക്ഷ ഒരു പ്രതിക്ക് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ഒരു വ്യക്തിക്ക് ആ ഒരു തെറ്റ് ചെയ്യാൻ പേടിയെങ്കിലും ഉണ്ടാവും അപ്പൊൾ അവരാ തെറ്റ് ചെയ്യില്ല ഇത് എന്താ പറയുക പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടും അവരൊരു കുഴപ്പമില്ലാണ്ട് കോടതിയും കേസും ഒക്കെയായി അവര് മൂവ് ആയി ജയിലില് പോവും ജയിലിൽ അടയ്ക്കപ്പെടും അവിടുന്ന് അവര് നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയി അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവര് കുറച്ചും കൂടി നല്ല മെച്ചപ്പെട്ട രീതിയില് ആയിട്ടാണ് അവരൊരു ജയിൽവാസം കഴിഞ്ഞ് പുറത്ത് വരുക അവർ ആരോഗ്യവാന്മാരായി വീണ്ടും വന്ന് വീണ്ടും അതേ തെറ്റ് അവർത്തിക്കയാണ് ചെയ്യുന്നേ അല്ലേൽ പിന്നെ ജയിലിൽ ശിക്ഷ കഴിഞ്ഞവരാണേൽ അവര് നല്ല രീതിയില് തിരിച്ച് വന്ന് ജീവിക്കണം ഇതതല്ല പലരും പലയിടത്തും സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവര് വീണ്ടും ഇതേ തെറ്റുകള് തെറ്റുകളിലൂടെത്തന്നെ ജീവിക്കുകയാണ് അപ്പൊൾ ചെയ്യുന്ന തെറ്റിന് അത്രയും സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കാൻ നിയമ വ്യവസ്ഥിതിക്ക് നമ്മളെ ഗവണ്മെന്റിന് നിലപാടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരുപാട് തെറ്റുകള് ഇവിടെ നടക്ക ഒരുപാട് തെറ്റുകളിൽ നിന്ന് എന്താ പറയുക അവർക്ക് പേടി ഉണ്ടാവും അവര് അകന്ന് നിക്കും ഇപ്പൊൾ ഒരു പ്രതി തന്നാണെങ്കിലും രാഷ്ട്രീയക്കാരോട് ഒരുപാട് എല്ലാവരേയും അല്ല ഒരുപാട് രാഷ്ട്രീയക്കാർ അവരെ ഹെൽപ്പേയുന്നുള്ളവരുണ്ടാവും ഒരു കേസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവർക്ക് ചിലപ്പോൾ ശിക്ഷ പോലും കിട്ടില്ല അപ്പതേനും രാഷ്ട്രീയ ഇടപെടലുകള് കാരണം കാര്യങ്ങളുമൊക്കെയായിട്ട് അവര് സുഖമായിട്ട് അവര് പുറത്തിറങ്ങി വരികയാണ് അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊയതുകൊണ്ട് ശരിക്കും നമ്മളെ നിയമവ്യവസ്ഥയിൽ അത്രേം സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു നിയമം വരുകയാണെങ്കില് പ്രതികളില് എന്താ പറയുക ഇതുപോലെയുള്ള തെറ്റുകള് ഒരുപാട് കുറയ്ക്കപ്പെടും അപ്പോൾ അക്കാര്യത്തില് പറയാനുള്ളത് ഇതു തന്നെയാണ് പിന്നെ